നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന രീതി പശു വളർത്തുന്നവർ നല്ല ഇനം പശുക്കൾക്ക് സീറോ ത്രീ പുല്ലും നാടൻ പുല്ലും കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക്

തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന തല്ലറ്റ്

കായത്തൊലി ചീര മുളപ്പിച്ച പയർ മുളപ്പിച്ചത് ഇതെല്ലാം നൽകുന്നതായി കണ്ടുവരുന്നുണ്ട് ഇതിൽ ഗുണകരമായി കാണുന്നത് സീറോ ത്രീ പുല്ല് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ആദായം പാലുൽപാദനശേഷി പശുക്കൾക്ക് കൂടുതലാണ് ആടുകൾക്ക് പുല്ല് പ്ലാവിൻ്റെ ഇല പേരയില അങ്ങനെ സാധാരണ കണ്ടുവരുന്ന ഇലകൾ അതിന് ഇഷ്ടപെടാം ഇഷ്ടപ്പെടുന്ന കായത്തൊലി ഇങ്ങനെയുള്ളതും കൊടുക്കുന്നുണ്ട്